ഒരിക്കലും സ്ത്രീകളുടെ മാത്രം തൊഴിലല്ല പാചകം ചെയ്യുകാന്നുള്ളത് അതൊരു പുരുഷനും ചെയ്താലൊരു കുഴപ്പമൊന്നൂല്ല ഈ പുരുഷനും സ്ത്രീകൾ മാത്രം ഭക്ഷണം പാചകം ചെയ്യാവൂ എന്നുള്ളതൊരു പഴയ ഒരു ച ചിന്താഗതിയായണിര്ന്നിട്ട് ആണുങ്ങൾ ചെയ്യണതിലും പെണ്ണുങ്ങൾ ചെയ്യണേലൊരു കുഴപ്പമൊന്നൂല്ല കാരണം ഭക്ഷണം സ്ത്രീകൾ മാത്രമല്ല കഴിക്കണത് ആണുങ്ങളും കഴിക്കണ്ണ്ട് അപ്പം ഒരു സ്ത്രീകളില്ലാത്ത അവസ്ഥയിൽ പെട്ടെണ്ടങ്കിൽ അവർ എന്തേലും സ്വന്തമായിട്ട് ഭക്ഷണം വെച്ച് കൈക്കേണ്ടായ്ല്ലെ എപ്പോഴും എവിടെപ്പോയാലും ഒരു സ്ത്രീയുടെ സഹായം അവർക്കാവശ്യമേ ആവേണ്ട വൈലിര്ന്നെങ്ക് തന്നെ പാചകം ചെയ്ത് കഴിക്കണം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ മമ്മീനെ എൻ്റെ പപ്പ സഹായിക്കും ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും എല്ലാത്തിനും സഹായിക്കാറുണ്ട് ഇന്ന് മിക്ക വീടുകളിലും അങ്ങനെയാണ് ചെയ്യണത് ഓരോ അമ്മമാരും മക്കൾക്ക് പറഞ്ഞ് കൊടുക്കണ്ണ്ടിപ്പോൾ ഈ ജെനറേഷനിലെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ ആണിനും പെണ്ണിനും വേർതിരിവില്ലാണ്ട് ഈക്ക്വലയ്ട്ട് എല്ലാവർക്കും ഒരു എല്ലാ ജോലീം ഒക്കെ ചെയ്ത് എല്ലാവരും ഒരേപോലെയാണ് നിൽക്കണത് ഭക്ഷണം പാകം ഒരാണ് ചെയ്യുകന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റോ അങ്ങനെയൊന്നുവല്ല അതൊരു നല്ല കാര്യോം ഒരാൾ അടിസ്ഥാനപരമായിട്ടറിഞ്ഞിരിക്കേണ്ടൊരു കാര്യോം കൂടിയാണ്